സർക്കാരിൻ്റെ കീഴിൽ ഒരുപാട് പദ്ധതികളുണ്ട് ഇപ്പോൾ കുടുംബശ്രീ ആണെങ്കിൽ എല്ലാ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ ഒരു തൊഴിൽ എന്ന രീതിയിൽ ചെറുകിട വ്യാപാരമൊക്കെ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് കുടുംബശ്രീ അയൽക്കൂട്ടം അങ്ങനെയുള്ള പദ്ധതികൾ അതേപോലെ വീട് ഭവനം വെച്ച് നൽകുക ലൈഫ് മിഷൻ എല്ലാവർക്കും വീട് പാവപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും വീട് വെച്ച് നൽകുക അവർക്ക് വീടില്ലെങ്കിൽ പുതിയൊരു വീട് ചെറിയ സ്ക്വയർ ഫീറ്റിൽ ആർസി വീട് പോലെ പുതിയൊരു വീട് നൽകുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ അതേപോലെ ജലനിധി വെള്ളം ഇല്ലാത്ത വീടുകൾക്കൊക്കെ കുടിവെള്ളം അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത വീടുകളിലേക്കെല്ലാം വെള്ളം എത്തിക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് എല്ലാ വീട്ടിലേക്കും എത്ര മണിക്കൂറി എത്ര മണിക്കൂർ വെള്ളം എപ്പോൾ വെള്ളം എപ്പോൾ വേണെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യാം എത്ര വെള്ളം യൂസെയ്യണോ അതിനനുസരിച്ച് ബില്ല് എന്ന രീതിയിൽ പുതിയൊരു പദ്ധതിയാണ് ജലനിധി എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾക്ക് വീട് ഏതൊക്കെ വീടുണ്ടോ എല്ലാ വീട്ടിലും വെള്ളം എത്തും അതിപ്പോൾ വെള്ളം ഓൾറെഡി കിട്ടുന്ന വീടാണെങ്കിലും കിട്ടാത്ത വീടാണെങ്കിലും വിവേചനമൊന്നുമില്ലാണ്ട് എല്ലാവർക്കും വെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ജലനിധി എന്ന് പറയണ പദ്ധതി അതൊക്കെ ഗവണ്മെൻറ്റിൻ്റെ നല്ല നല്ല പദ്ധതികളാണ്